നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുക എന്നുപറയുമ്പോൾ നമുക്ക് നമ്മുടെ കലാരൂപങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ കേരളത്തിനാവട്ടെ ഒരുപാട് തനതായ കലാരൂപങ്ങളുണ്ട് അതായത് കഥകളി കുച്ചിപ്പിടി ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ ഓട്ടം തുള്ളൽ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളാണത് നമ്മുടെ നമ്മുടെ മലയാളത്തനിമയെ വിളിച്ചോതുന്നതും നമ്മളെ സംസ്കാരം എന്താണെന്ന് കാണിക്കുന്നതുമായ കലകൾ തന്നെയാണ് കലാരൂപങ്ങൾ അപ്പോൾ നമ്മളിതിനെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മൾ ഇപ്പോഴത്തെക്കാലത്ത് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ എങ്ങോട്ടൊക്കെയോ മാഞ്ഞു മറയുകയാണ് നമ്മൾ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ കലകളെയും കലാകാരൻമാരേയും ശ്രദ്ധിക്കാനോ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇപ്പോൾ നേരമില്ല ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ജോലിയും എല്ലാമായി തിരക്കിൽ തന്നെയാണ് അതുപോലെതന്നെ നമ്മുടെ നമ്മൾക്ക് എന്നും ചേർത്ത് വയ്ക്കാനും നമ്മളെന്നും സംരക്ഷിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ശില്പകല ശില്പകല എന്നുപറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് അനുകരിക്കാനും നമ്മൾക്ക് അത് പ്രോൽസാഹിപ്പിക്കാനും പറ്റുന്ന ഒരു കല തന്നെയാണ് എല്ലാവരാലും നമ്മൾക്കത് ആ തനതായ രൂപത്തെ നമ്മൾ എന്നും നിലനിർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പരിപാടികളും മത്സരങ്ങളുമൊക്കെ വച്ച് അതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം